എൻ്റെ വീടിൻ്റെ അടുത്തന്നെയാണ് ഒരു സംഗീതം പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് നമുക്കപ്പോൾ ഞാനിപ്പോൾ അവിടെ പോയിട്ടാണ് സംഗീതം പഠിക്കാറുള്ളത് അവിടത്തെപ്പോൾ ഗുരുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് പറഞ്ഞുതരും നമുക്ക് എങ്ങനെ ആണ് നമ്മുടെ സൗണ്ട് എങ്ങനെയാണ് സൗണ്ട് നല്ല രീതിക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് നമ്മുടെ ശ്രുതി അത് നമ്മള് കറക്റ്റ് ഫുഡ് കഴിക്കേണ്ട ഫുഡുകളും ഉൾപ്പെടെ എല്ലാം അതുപോലെ ഫുഡ് ആ ഫുഡിൻ്റെ മെനു ഉൾപ്പെടെ അതേപോലെ തണുത്തത് കഴിക്കാൻ പാടില്ല അതുപോലെ നമ്മുള് പാടുമ്പോൾ നമ്മുടെ പിച്ച് എങ്ങനെ വേണം ശ്രുതി എങ്ങനെ വേണം ട്യൂൺ എന്ത് ചെയ്യണം അതേപോലെ ഏ റ്റു ഇസഡ് കാര്യങ്ങളെല്ലാം നല്ല രീതിക്ക് ഒരു ഫ്രണ്ട് എന്നപോലെ ഗുരു എന്നതിലുപരി ഒരു ഫ്രണ്ട് എന്ന രീതി കൂടി നന്നായിട്ട് പറഞ്ഞുതരുന്ന ഒരു ഗുരുവാണ് എൻ്റെ ഇപ്പോൾ എനിക്ക് അതെന്നേല്ലാം മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെ പാടണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം അതിന് അതൊക്കെ വളരെ നന്നായിട്ട് എനിക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടുതന്നെ നമുക്ക് നന്നായി പാടാനും നമുക്കു മുന്നോട്ടുപോകാനും സാധിക്കുന്നുണ്ട് അതൊക്കെ ഗുരുവിൻ്റെ ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതൊക്കെ വളരെ നല്ലൊരു അനുഭവം കൂടിയാണ് ഗുരുവിൻ്റെ അടുത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്